ആഹ്ഹ ഹലോ ആഹ് ഞാൻ ആ ചേട്ടൻ ഇലക്ട്രീഷ്യൻ അല്ലേ അ ചേട്ടൻ നമ്മുടെ ഒരു ആ കുറച്ച് വയറിംഗ് ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക് പരിപാടിയായിട്ട് വിളിച്ചതായിരുന്നു അ ചേട്ടാ ആ നമ്മുടെ വീട്ടിലെ കുറച്ച് ഇലട്രിക് അഹ് പരിപാടി ആയിരുന്നു കാരണം നമുക്ക് വീട് ഒരു പണ്ടത്തെ പണ്ടത്തെ വീടാണെ അതായത് നമ്മുടെ പാരമ്പര്യമായി കിട്ടിയ വീടാണ് അപ്പോൾ പറഞ്ഞാൽ അത് പണ്ടത്തെ സെറ്റപ്പൊക്കെ ആയത് കൊണ്ട് തന്നെ അതിന് പണ്ട് വലിയ കാര്യത്തിലുള്ള വയറിങ് പരിപാടി അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഈ റീസെൻറ്റായിട്ടായിരുന്നു കുറച്ച് നമ്മുടെ ഭാര്യ പറഞ്ഞിട്ടാണ് കുറച്ച് റീസെൻറ്റായിട്ട് കുറച്ച് പുതിയ വയറിങ് പരിപാടിയൊക്കെ ചെയ്തു പക്ഷെ അത് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ആയത് കൊണ്ട് തന്നെ അതിനു വലിയ ഇത് ഇല്ലായിരുന്നു അത് ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ സ്വിച്ച് ബോർഡും പോയി ഫുൾ വയറിങ്ങും പോയി ലൈറ്റ് അതായത് വീട്ടിലേക്കുള്ള എല്ലാ ഇലട്രിക്കും എല്ലാം ഫുൾ പോയി ഏട്ടാ ആ അപ്പോൾ അത് അപ്പം ആ ആ അഹ് അഹ് അതെ അതെ ഫുള്ളും ചെയ്യണം അഹ് അതെ അതെ

ഒ അപ്പം ആ ഓ അല്ല ഇത് മ്മ്മ് വീട് എന്നൊക്കെ പറയും അഹ് വീട് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അഹ് പറഞ്ഞല്ലോ അത്യാവശ്യം പഴക്കമുള്ള വീടാണ് അപ്പോൾ അതിനി പൊളിച്ചാൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് മുറുക്കത്തിലാണ് ഇരിക്കണത് മ്മ് ഇപ്പോൾ ചെയ്യണ്ടത് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യാമാണ്

അഹ് അഹ് അ അ ഒ ഓഒ ഓഹ് ഓ ഓ

ആഹ് അഹ് ഓ ഓ ഓക്കെ ഓക്കെ ആ ചേട്ടാ മ്മ് ഒരു ബഡ്ജറ്റൊക്കെ എത്രയാകുവായിരിക്കും ഒരു എസ്റ്റിമേറ്റ് വീട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ ഉള്ളു അഹ് അഹ് അത് തന്നെ പഴയ വീടാണ് പഴയ വീട് അഹ് അഹ് രണ്ട് നില രണ്ട് നില രണ്ടും കൂടെ കൂട്ടിയ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞത് അഹ് മ്മ് ഓ ആഹ് അഹ് ഒരു ചേട്ടാ പുറത്ത് എന്തേലും ഒരു ഇത് കാണുമോ എന്തേലും ആഹ് അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും കാണുമോ ചേട്ടാ ഇപ്പോൾ നമുക്ക് വീടും കൂടെ ഒന്ന് പണിയണമല്ലോ അഹ് ഓ ഓ ഓ ആണല്ലെ ആ അതെ അതെ അതെ ഒ ഒ ഒ ഓക്കെ ഓക്കെ മ്മ് അഹ് അഹ് ഓക്കെ ഓക്കെ ചേട്ടാ അഹ് അ അതെ ചേട്ടാ ഞാൻ വീട്ടിൽ ഒ ഇല്ലില്ല ഞൻ വീട്ടിലൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വിളിക്കാമേ ശരി ശരി ശരി